ഉണ്ട് എനിക്കൊരു അനിയനാണ് ഉള്ളത് എനിക്കും അനിയനും തമ്മിൽ പലതരത്തിലുള്ള സാമ്യതകളും വ്യത്യസ്തതകളും ഉണ്ട് അതിലാദ്യം സാമ്യതകളെ പറ്റി പറയാം ഒന്നാമത്തേത് എന്തെന്ന് വെച്ചാൽ സ്വഭാവം ഞങ്ങൾ രണ്ടുപേരുടേയും സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയാണ് പിന്നേ മുടി ഞങ്ങൾ രണ്ടുപേരുടേയും മുടി ചുരുണ്ടതും കട്ടി കുറഞ്ഞ തരത്തിലുള്ള മുടിയാണ് അതൊരു സാമ്യതയാണ് പിന്നെ അടുത്ത സാമ്യത ശബ്ദം ഞങ്ങൾ രണ്ടു പേരുടെയും ശബ്ദം ഏകദേശം ഒരുപോലെയാണ് പിന്നേ ഇനി വ്യത്യസ്തതകള് വ്യത്യസ്തതകളുണ്ട് കുറെ അതിൽ ഒന്നാമത്തെ വ്യത്യസ്തത എന്നുവെച്ചാൽ ശരീരം തന്നെയാണ് അനിയൻ കുറച്ച് തടിച്ചിട്ടും ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടുമാണ് പിന്നെ അനിയന് കുറച്ച് താടി ഉണ്ട് എനിക്ക് താടി ഇല്ല പിന്നെ അടുത്ത വ്യത്യാസം എന്തെന്നുവെച്ചാൽ സംസാരം അനിയൻ കൂടുതൽ സംസാരിക്കുന്ന തരത്തിൽപ്പെട്ടതാണ് പക്ഷേ ഞാൻ എൻ്റെ ഞാൻ പൊതുവേ സംസാരം കുറവാണ് പിന്നേ പിന്നെ ഉയരം അനിയൻ എന്നേം അനിയന് ഉയരമുണ്ട് എന്നേക്കാളും ഉയരമുണ്ട് എനിക്ക് ഉയരം കുറവാണ്